മത്സ്യത്തൊഴിലാളികള് പൊതുവെ ഈ മുക്കുവന്മാരുടെ ജാതിയിൽ പെട്ടവരാണ് അപ്പോൾ അവരുടെ താമസവും മറ്റു കാര്യങ്ങളൊക്കെ തീര ദേശങ്ങളിലാണ് ചേരിയിലാണ് അവര് താമസിക്കാറുള്ളത് പിന്നെ അവരുടെ അവിടെ ഉത്സവങ്ങളും മറ്റും കാര്യങ്ങളും പറയുമ്പോൾ പള്ളി പെരുന്നാളും മറ്റു കാര്യങ്ങളൊക്കെയാണ് അവർക്ക് ഉള്ളത്